ഇപ്പം ഇവിടേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൃഗങ്ങളെ മേയാൻ വേണ്ടീട്ട് പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കാരണോന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം ആണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ഫോറസ്റ്റ് കാര്യങ്ങൾ ഒക്കെയാണ് ഉള്ളത് അപ്പം നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള പുല്ല് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് നമ്മളിപ്പം എൻ്റെ വീടിൻ്റെ മിറ്റത്ത് ഒന്ന് താഴെ ഇറങ്ങിയാൽ മതി ഇഷ്ടംപോലെ പുല്ല് കാര്യങ്ങളൊക്കെ ഇണ്ട് നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങൾ ഒക്കെയാണ് ഇവിടെ ലഭ്യമായത് മോശം കാലാവസ്ഥാന്ന് പറഞ്ഞാൽ ഇപ്പം മാത്രാണ് ഇപ്പം മോശം കാലാവസ്ഥ ഈ സമയത്ത് നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ടതാണ് പക്ഷേ എന്നാൽ ഇപ്പം നല്ല കഠിനമായിട്ടുള്ള ചൂട് കാര്യങ്ങൾ ഒക്കെയാണ് ഇപ്പം നല്ല വെയിലാണ് അപ്പോൾ ഇനിയുള്ള അവസ്ഥ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞാ ചെലപ്പം മോശം ആയിരിക്കാനാണ് സാധ്യത കാരണം വെള്ളോം കാര്യങ്ങളൊന്നും ചിലപ്പം കിട്ടാനുള്ള സാധ്യതകളൊക്കെ കുറവ് കുറയും ഇപ്പം ഭയങ്കരം കഠിനമായിട്ടുള്ള ഒരു ചൂട് കാര്യങ്ങളുള്ള ഒരു കാലാവസ്ഥയാണ് പിന്നേന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വല്ലാണ്ട് ഇവിടെ കൂടുതലാണ് കാരണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ഇടത്തും പ്ലാസ്റ്റിക്ക് ഇട്ടിട്ട് മൃഗങ്ങൾ അത് തിന്നുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വല്ലാണ്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജലക്ഷാമം ഇനി മുതൽ അങ്ങോട്ട് ചിലപ്പം ജലക്ഷാമം ഉണ്ടാവോയിരിക്കും ഇതുവരെ ജലക്ഷാമം അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല ഇപ്പം മൃഗങ്ങൾക്ക് ആണെങ്കിലും നമ്മൾക്ക് ആണെങ്കിലും വെള്ളത്തിന് അത്ര ക്ഷാമം ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി ചിലപ്പം അങ്ങനെ ആവാനാണ് സാധ്യത കൂടുതൽ